ഇന്ത്യയില് കേരളത്തില് മലയാളികള് സാധാരണയായി കഴിക്കുന്നത് നല്ല ചോറും അതുപോലെ ബീഫ് കറിയും ഒക്കെയാണ് സാധാരണ ഞങ്ങളുടെ ജനകീയമായ ഭക്ഷണം

അരി എടുക്കുന്നു വെള്ളത്തിലിടുന്നു വേവിക്കുന്നു വാര്ക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്നു അവിയൽ ബീഫ് കറി അവിയല് തോരന് പുളിശ്ശേരി പപ്പടം ഇതൊക്കെ കൂട്ടിയുള്ള സമ്പൂര്ണ്ണമായ ഒരു ബീഫോ ചോറ് ഊണാണ് മലയാളികള് ഏറ്റവും ജിമായ ജനപ്രിയ നില്ക്കുന്ന കറികള് ചിക്കന് കറി ഇതൊക്കെ ജനകീയമായ കറികളാണ് ശരിക്കും മസാല മസാലപ്പൊടി മുളക് മല്ലിപ്പൊടി മീറ്റ് മസാല ഇവയൊക്കെ ഉപയോഗിച്ച് വലിയ നല്ല രീതിയില് വേവിച്ചെടുക്കുന്ന അതിസമൃദ്ധമായ ഒരു വിഭവമാണ് ഊണ് എന്ന് പറയുന്നത് ഊണിന് നമ്മൾ പച്ചടി കിച്ചടി അവിയൽ തോരന് ഇവയെല്ലാം ഉപയോഗിക്കുന്നു നല്ല മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ഊണ് എന്ന് പറയുന്നത് ഊണാണ് ഏറ്റവും മലയാളികള്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവസമൃദ്ധമായത്